പള്ളിപ്പെരുനാളിന് ഞങ്ങളെല്ലാവരും പള്ളിയിൽ പോകുന്നു പള്ളിയിൽ മൂന്നുനാല് അച്ഛന്മാർ കൂടി പെരുന്നാളിന് കുറുബാന ചെല്ലുന്നു പാട്ടുകുറുബാന ചെല്ലും അപ്പോൾ എമ്പടി ആൾക്കാർ ഇവിടെയൊള്ള എല്ലാ ജനങ്ങളും പളളിയിലേക്ക് പോകും അങ്ങനെ പള്ളിയിൽ പോയി പെരുനാളിന് എല്ലാവരും കുറുബാനയോ പാട്ടുകുറുബാനെയോ ഒക്കെ കൂടി അതുകഴിഞ്ഞ് ഞങ്ങൾക്ക് പ്രദക്ഷിണമുണ്ട് അങ്ങാടിയിലേക്ക് ആ പ്രദക്ഷിണത്തിന് എല്ലാവരും രണ്ട് ലൈൻ ആയിട്ട് നിരന്ന് നിന്ന് എല്ലാ രൂപങ്ങളും എടുത്ത് മാതാവും ഐസെപിതാവും തോമാശ്ലീഹാ അങ്ങനെയുള്ള എല്ലാ ഈശോയുടെ രൂപങ്ങളൊക്കെ എടുത്ത് ആൾക്കാരിങ്ങനെ ചുമന്ന് രൂപമെടുത്ത് കൊണ്ട് പോവും അപ്പം രണ്ട് വരിയായി ആൾക്കാർ നിരയായി ഞങ്ങൾ അങ്ങാടിയിലേക്ക് പ്രദക്ഷിണം പോവും ബാൻഡൂത്ത്കാർ ചെണ്ട കൊട്ടുകാർ അങ്ങനെ പാട്ടുകാർ എല്ലാവരും അങ്ങനെ അങ്ങ് പോയി പ്രദക്ഷിണം അവിടെ കുരിശിങ്കലെത്തും അവിടെ നിന്നും അച്ഛൻമ്മാർ ഒരച്ഛൻ പ്രസംഗമൊക്കെ പറഞ്ഞ് പ്രസങ്ങമൊക്കെ പറഞ്ഞ് കുറേ നേരം അവിടെ നിന്ന് അതുകഴിഞ്ഞ് അവിടെ നിന്നും ഞങ്ങൾ മുകളിലേക്ക് തിരിച്ച് പള്ളിയിലേക്ക് തന്നെ പോകുന്നു അങ്ങനെ അവിടെ ചെന്ന് ആ അവിടെ പള്ളിയിലെത്തി രൂപങ്ങളെല്ലാം അവിടെ വച്ച് പിന്നെ എല്ലാവരും പള്ളിക്കകത്ത് കയറി അങ്ങനെ പിന്നെ പ്രദക്ഷിണം അവിടെ ചെല്ലും അങ്ങനെ എല്ലാവരും പള്ളിയിൽ കയറി ഇരിക്കുന്നു പിന്നെ ക്രിസ്മസ് ക്രിസ്മസിന് നവംബർ ഡിസംബർ ഇരുപത്തഞ്ചാം തീയതിയാണ് ഞങ്ങൾ ക്രിസ്മസ് ആഘോഷിക്കുന്നത് ക്രിസ്മസിൻ്റെ അന്ന് രാത്രിയിൽ പന്ത്രണ്ട് മണിയാകുമ്പൾ ഉണ്ണീശോ ജനിക്കും ആ സമയത്ത് ഞങ്ങളെല്ലാ വീടുകളിൽ നിന്നും ആൾക്കാര് പള്ളിയിലേക്ക് പോവും അവിടെ പള്ളിയിൽ നേരത്തെ തന്നെ നല്ല പുൽക്കൂടുണ്ടാക്കി വയ്ക്കും ആ പുൽക്കൂടിനകത്ത് എല്ലാരൂപങ്ങളും ഉണ്ണീശോ മാതാവ് ഐസെപിതാവ് ഇങ്ങനെയുള്ള എല്ലാ രൂപങ്ങളും അതിനാത്ത് വയ്ക്കും എന്നിട്ടതിനകത്ത് അതെല്ലാം വച്ച് ലൈറ്റെല്ലാം തെളിച്ച് നല്ല ഭംഗിയിൽ പുൽക്കൂടുണ്ടാക്കും അതുകഴിഞ്ഞു രാത്രിയിൽ ഉണ്ണീശോ ജനിച്ച് കഴിയുമ്പോൾ അച്ചൻ അച്ചനീ ഉണ്ണീശോയും എടുത്ത് ഞങ്ങളെല്ലാവരും പ്രദക്ഷിണമായിട്ട് ഈ ഉണ്ണീശോയെ പുൽക്കൂട്ടിൽ കൊണ്ട് പോകും അവിടെ തീ കത്തിച്ച് പിന്നെ അതുകഴിഞ്ഞ് എല്ലാവരും തിരിയൊക്കെ കത്തിച്ച് പ്രദക്ഷിണത്തിന് പോകുന്നു അങ്ങനെ തിരിച്ച് ഉണ്ണീശോയെ പള്ളിയിൽ കൊണ്ട് വന്ന് വയ്ക്കുകയും ചെയ്യുന്നു